ഹലോ ത്രീ ജി വേൾഡിലേക്ക് സ്വാഗതം എന്തായിരുന്നു മാം വേണ്ടത്

ഓക്കെ അത്രയും ബഡ്ജറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ സാർ റിയൽമി ഉണ്ട് വിവോ ഉണ്ട് പിന്നെ ഓപ്പോ ഉണ്ട് ഓപ്പോ ഒക്കെ നല്ല നല്ല സെറ്റ് ആണ് ഇ എം ഐ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് ക്യാമറയ്ക്ക് നല്ല ക്വ നല്ല ക്ലിയർ ക്യാമറ ആയിരിക്കും ആ അപ്പം ഇപ്പം ഉള്ള എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഉള്ള സൂപ്പർ ഫോൺ ആണ് അപ്പം മാമിന് ഇഷ്ടം ഉള്ളത് തിരഞ്ഞെടുക്കാം എല്ലാ മാം നിങ്ങൾക്ക് നോക്കാം ഇഷ്ടം ഉള്ളത് നോക്കാം നല്ലത് നോക്കി എടുക്കാം ഇപ്പം ഇത്രയും ബഡ്ജറ്റ് ആകുമ്പം യ പിന്നെ റിയൽമിയോ അല്ലെങ്കിൽ വിവോയോ എടുക്കുന്നതായിരിക്കും നല്ലത് നല്ല നല്ല ക്വാളിറ്റി ആയിരിക്കും ക്യാമറയ്ക്ക് പിന്നെ നല്ല നമുക്ക് ഒരു വർഷത്തേക്ക് ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല നല്ല ക്ലിയർ ആയിരിക്കും ഫോൺ പിന്നെ നമുക്ക് അധികം വിലയില്ല വളരെ കുറഞ്ഞ ഒരു തുകയ്ക്ക് നമുക്ക് ഇതാക്കി ചെയ് ചെയ്ത് തരാം എല്ലാം ഓ അത് നല്ല ഇതായിരിക്കും നല്ല ഇത് ക്വാളിറ്റി ഉള്ള ഫോൺ ആണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ആവുകയും ചെയ്യും ആ അതെ അതെ അതെ എല്ലം നല്ല നല്ല എല്ലാം നല്ല സൂപ്പർ സെറ്റ് ആണ് ആപ്പ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമുക്ക് കുറേ അതായത് കുറേ ജി ബി നമുക്ക് അതിൽ തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും സ്പേസ് കുറേ ഉണ്ടാവും ഫോണിൽ ക്വാളിറ്റിയും സൂപ്പർ ആണ് കാരണം ഇപ്പം കൂടുതൽ ആൾക്കാരും ഇങ്ങനത്തെ ഫോൺ ആണ് കൂടുതലും വാങ്ങിച്ചിട്ട് പോകുന്നത് ഈ ഒരു മൂന്നെണ്ണം കാരണം ഒത്തിരി പൈസയില്ല കാണാൻ നല്ല ലുക്കും ആണ് അത്യ അത്യാവശ്യം നമുക്ക് നമ്മുടെ കയ്യിൽ കാണാൻ നല്ല ഇതൊക്കെ ആണല്ലോ ഉദ്ദേശിക്കുന്നത് കുറച്ച് വിലയുള്ള ഫോൺ കാണണം എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതായിരിക്കും കൂടുതൽ മാമിന് പറ്റുക എന്ന് തോന്നുന്നു മാമിൻ്റെ ഇഷ്ടത്തിന് എടുക്കാം മൂന്ന് ചോയ്സ് ഉണ്ട് അധികം വില വരുന്നില്ല ഐ ഫോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അറുപതിൻ്റെ മേലോട്ടൊക്കെ പോവും ആ ആ ഓക്കെ ഓക്കെ മാം ഇതാവുമ്പം മാമിന് ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കും ഇത് അപ്പം മാം ഒന്ന് വന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാക്കാം ഓക്കെ താങ്ക് യൂ മാം